ഇപ്പോൾ കർഷകർക്ക് നല്ല രീതീയിലുള്ള വിളവും കാര്യങ്ങളൊക്കെ ലഭിക്കണമെങ്കില് പല രീതീയിലുള്ള കൃഷികളും കാര്യങ്ങളുമൊക്കെ ചെയ്യേണ്ടി വരും അപ്പം പ്രധാനമായിട്ടും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നാളികേരമാണ് അപ്പം നമ്മള് തെങ്ങെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് പ്രത്യേകിച്ച് എല്ലാ വർഷവും മാറ്റി നടുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യണ്ട അപ്പം എല്ലാ എല്ലാ സീസണുകളിലും ഇപ്പം ഇപ്പോൾ വേനൽക്കാലമാണെങ്കിലും മഴക്കാലാമാണെങ്കിലും എപ്പോഴും തെങ്ങില് തേങ്ങ ഉണ്ടാകും അപ്പോൾ നമുക്കത് ഇന്ന് നല്ല രീതിയിലുള്ള അതായത് വിളവെടുപ്പെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അതാണങ്കില് വേറെ പ്രശ്നങ്ങള് നമുക്കിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വളം ഇട്ട് കൊടുക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യണ്ട വളം ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയില് തേങ്ങ ഉണ്ടാകും ഇപ്പം അല്ലാത്ത സമയത്താണേ നമുക്ക് തേങ്ങയും കാര്യങ്ങളൊക്കെയുണ്ടാകും അപ്പം ഇതിനകത്ത് നിന്ന് നമുക്കാണേല് കരിക്കും വെള്ളം കുടിക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം നമുക്ക് പുറമേ കൊണ്ടുപോയി വിൽക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ടും നാളികേരത്തിൽ നിന്നാണ് കൂടുതലായിട്ടും ചെയ്യുന്നതെന്ന് പറഞ്ഞാല് പിന്നെ വിളവെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നമ്മള് ഇടയ്ക്കിടയ്ക്ക് നമ്മള് ഒരു ഓണം ആ ടൈമിലൊക്കെയാണ് കൂടുതലായിട്ടും അരിയും കാര്യങ്ങളൊക്കെ അതായത് നെല്ല് നെല്ല് നമ്മള് വിതച്ച് കഴിഞ്ഞാൽ നമ്മള് നല്ല രീതിയിലുള്ള ആ ഇതൊക്കെയുണ്ടാകും അരിയൊക്കെയുണ്ടാകും അപ്പോൾ അരിയെ നമ്മള് നേരെ എന്താ പറയുക നെല്ല് നമ്മള് നേരെ കൊയ്ത് അങ്ങനത്തെ കാര്യങ്ങളക്കെ ചെയ്ത് നമ്മള് കുത്തിച്ച് കഴിഞ്ഞാൽ അരി ആയി അത് നമുക്ക് വേണേൽ വിൽക്കുവോ അങ്ങനത്തെ കാര്യങ്ങളക്കെ ചെയ്യാം നെല്ല് തന്നെ നമുക്ക് വേണേൽ വിൽക്കാം കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ കപ്പയുണ്ട് അങ്ങനെ പല രീതിയിലുള്ള കൃഷിയും കാര്യങ്ങളുണ്ട് വാഴയുണ്ട് അങ്ങനെ പല രീതിയിലുള്ള കൃഷിയും കാര്യങ്ങളൊക്കെയുണ്ട് ഇതൊക്കെ നല്ല രീതിയില് നമുക്ക് വിളവെടുക്കാൻ പറ്റിയ കർഷകന് നല്ല രീതിയിലുള്ള ലാഭം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്